ഇപ്പോൾ കോഴിക്കോട് നമ്മുടെ ജില്ലയില് ഇപ്പോൾ കൂടുതൽ ആയിട്ടും ഗതാഗത മാർഗങ്ങൾ ഇപ്പോൾ എല്ലാ രീതിലുള്ള മാർഗങ്ങളും ഉണ്ട് മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക സീ റൂട്ട് അതായത് നമുക്ക് കടൽ മാർഗ്ഗങ്ങളുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ട് പിന്നെ റോഡ് സംവിധാനം എല്ലാ രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങളും ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയില് എന്താ പറയുക പ്രാബല്യത്തിൽ ഉണ്ട് അപ്പോൾ ഇത് മുഖേന എല്ലാ എന്താ പറയുക എല്ലാ വിധത്തിലും ഇങ്ങനെ വേണം ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ കോഴിക്കോട് ജില്ലയില് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ റോഡ് വഴി ആയാലും ഷിപ്പ് വഴി ആയാലും റെയിൽവേ വഴി ആയാലും പിന്നെ എന്താ പറയുക വിമാനത്താവളം വഴി ആയാലും നമുക്ക് അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകാനും വരാനും അതുപോലെ തന്നെ സാധനങ്ങള് ഗുഡ്സ് അതായത് സാധനങ്ങള് എത്തിക്കാനും അത് കൊണ്ട് വരാനും എല്ലാം ഇത് മുഖേന നമുക്ക് ഇപ്പോൾ ഗതാഗത മാർഗ്ഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടക്കുന്നുണ്ട് എന്നതാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനം ആയിട്ടുള്ള ഒരു കാര്യം